കുറ്റിച്ചെടികളാണ് ഏറ്റവും കൂടുതൽ പൂക്കളുള്ള കുറ്റി ചെടികൾ അതു നല്ല അധികം വളരില്ല നിറച്ച് പൂക്കൾ ഇപ്പോൾ റോസുകളൊക്കെ വെഡ് ചെയ്ത റോസുകൾ ആണെങ്കിൽ നിറച്ച് പൂക്കളുണ്ട് ഞമ്മൾ സ മറ്റേ റോസുകൾ ആണെങ്കിൽ നീണ്ടുപോയി കുറഞ്ഞ പൂക്കളുണ്ടാകുക അപ്പോൾ ചെറിയ കുറ്റിച്ചു നിറച്ചു പൂക്കളും പൂ മൊട്ടുകളും പിന്നെ ആ പൂക്കൾ ഉണ്ടായാൽ തന്നെ തുംബികളും പൂംബാറ്റകളൊക്കെ വന്നു നല്ല രസാ കാണാൻ നമുക്കു പിന്നെ പല നിറങ്ങളിൽ പൂക്കൾ ആകുമ്പോൾ നമുക്ക് ഞിപ്പോൾ വീട്ടിലൊക്കെ എന്തു പ്രേശ്നങ്ങൾ ആ പൂമ്മു നോക്കി ഇരുന്നാൽ നല്ല രസമാണ് കാണാൻ ആ പൂക്കൾ നോക്കി നമുക്ക് ആസ്വദിച്ചിരിക്കാം സമയം പോകുന്നത് തന്നെ അറിയില്ല പിന്നെ ഇതു പറഞ്ഞാൽ അത് വളർത്തുമ്പോൾ ഒരു രസമാണ് മനസ്സിന് അതു പോയി നനക്കുക പിന്നെ അതിനു വളം ഇട്ട് കൊടുക്കുക അതിനു മണ്ണു മാറ്റി കൊടുക്കുക ചട്ടിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കളർഫുൾ ആക്കി കൊടുക്കുക അതായത് ഇപ്പോൾ പൂക്കൾ പല കളറിലാണെങ്കിൽ പിന്നെ മഴവില്ലു പോലെ അങ്ങനെ വെച്ചു കൊടുക്കുക അതിൻ്റെ കളറുകൾ അനുസരിച്ച് അല്ലെങ്കിൽ വേണനോട് കോമ്പിനേഷൻ എങ്ങനെ അങ്ങനെ ഓരോ പൂക്കളിനോടും നല്ല ഭംഗിയിൽ നിൽക്കണ കളർ ആയിരിക്കണം ഇപ്പോൾ ചുമപ്പ് പൂ ഉണ്ടെങ്കിൽ വെള്ളയും ചുമപ്പും ഇപ്പുറത്ത് മഞ്ഞപ്പൂ വെച്ചു കൊടുക്കുമതിൻ്റെ ഇപ്പുറത്ത് നീല കളറുള്ള നമ്മളുടെ കാക്ക കാക്കത്തുമ്പി പൂക്കളുണ്ട് അതൊക്കെ വെച്ചു കൊടുക്കുക അങ്ങനെ പോപ്പി പൂപ്പിച്ചെടിയായിട്ട് പല കളറുണ്ട് അതൊക്കെ ഇങ്ങനെ അതേ മാതിരി പത്തുമണി പല കളർ ഉണ്ടകളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പല കളറുകൾ നിൽക്കുമ്പോൾ നല്ല രസ കാണാൻ അതിപ്പോൾ മുറ്റത്തിൻ്റെ രണ്ടു ഭാഗത്തും തിണ്ടൊക്കെ വെച്ച് ചട്ടിയിലേക്ക് ആക്കി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ എന്നിട്ട് രാവിലമും വൈകുന്നേരം വെള്ളമൊക്കെയൊഴിച്ച് ആ പൂക്കൾ അവിടുന്ന് പോകാത്ത രീതിയിൽ അതായത് മണ്ണൊക്കെമാറ്റി ഇടക്കിടക്ക് മണ്ണൊക്കെ മാറ്റി വളമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പൂക്കൾ എന്നും കണ്ണിൽ നില നിർത്താം ഒരിക്കലും പൂക്കളിൽ നിന്ന് കഴിയില്ല അങ്ങനെ വിരിഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് അതിനെ നോക്കാത്ത പിന്നെ പൂക്കൾ ഇല്ലാത്ത ചെടി കാരണം പലയിലകളിലെ ചെടികൾ ഉണ്ട് അതു രസമാണ് മഞ്ഞ ചുവപ്പ് പച്ച വെള്ള അങ്ങനത്തെ ഇലകൾ ഉള്ള ചെടികളുണ്ട് അതു പല നിറ പല കളറുകളിൽ വ്യത്യസ്തമാക്കി വെക്കണം ഒരേ കളറിൽ ഇലകൾ ചെടികൾ വെച്ചാൽ അത് ഭംഗി തോന്നില്ല പല കളർ ചെടികൾ വെക്കുമ്പോൾ രസമാണ് അല്ലേ പിന്നെ തെങ്ങിൻ്റെ ഇല ത്തു ഓലകൾ പോലെയുള്ള ചെടികൾ ഉണ്ട് അതു പോലെ തന്നെ പല തരം ചേമ്പിൻ്റെ ഇലകൾ പോലെച്ചുള്ള അതൊക്കെയാണ് ഇപ്പോൾ നല്ല രസമാണ് ചെടികൾക്ക് പല കളറിലാണത് ചുവപ്പ് ഓറഞ്ച് റോസ് പൂക്കൾ ഉണ്ടാകില്ല പക്ഷേ പല നിറങ്ങൾ ഇലകളിലായിരിക്കുക ചെടികൾ ഉണ്ടാകുക അത് നല്ല ഭംഗിയാണ് മുറ്റത്തിനടുത്ത് പിന്നെ അതു പോലെ തന്നെ തൂക്കു ചട്ടിയിൽ തൂക്കിയിടുന്ന ചെടികൾ അതിൽ പൂക്കൾ വേണം അപ്പോഴുള്ള പച്ഛമേൽ പച്ച ഇലയിൻമേൽ ആ പല കളറുള്ള പൂക്കൾ വിരിയുമ്പോൾ ആ തൂക്ക് ചട്ടീനെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും പൂക്കളില്ലാത്ത ചെടികൾ തൂക്ക് ചട്ടീനെ കാണാൻ രസമില്ല അങ്ങനെയൊക്കെയാണ് ചെടികളെ പറ്റി പറയാനുള്ളത് പിന്നെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനും തന്നെ നല്ലവണ്ണം വെള്ളമൊക്കെ നനച്ച് വളമൊക്കെ ഇട്ടു കൊടുത്താൽ എളുപ്പം പച്ചക്കറികൾ പെട്ടെന്ന് ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കുക ആണെങ്കിൽ ഇപ്പം നമ്മളുടെ പച്ചക്കറി കടേന്നൊക്കെ കൊണ്ട് വരുന്ന പച്ചക്കറി വേസ്റ്റും പിന്നെ നമ്മളെ കോഴികളുടെ ഒക്കെ കാഷ്ടം ആട്ടും കാഷ്ടം ഒക്കെ ചാണകം അങ്ങനത്തെ ഒക്കെ വീട്ടിൽ അയൽ വീട്ടിലൊക്കെ ഉണ്ടേൽ കൊണ്ടു വന്നിങ്ങാണ്ട് വളം വേകട്ട് കൊടുത്ത് പച്ച ഇലകൾ കൊണ്ട് പുതപ്പിച്ചു കൊടുത്ത് പിന്നെ ഈ പാവയ്ക്കയും കോവയ്ക്ക കോവല് കുമ്പളം അങ്ങനത്തെയൊക്കെ നമ്മൾ ചെറിയ ഒരു പന്തലൊക്കെയിട്ട് കൊടുത്താൽ അമര അങ്ങനത്തേനു പന്തലിട്ടു നല്ലവണ്ണം കായുണ്ടാകും നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് പുറത്ത് ആശ്രയിക്കേണ്ടി വരില്ല ഞമ്മളെ എന്ന വീട്ടിൽ തന്നെ ചെറിയൊരു പച്ചക്കറി തോട്ടം ഒക്കെ ഉണ്ടാക്കി നട്ടു വളർത്തൽ വേസ്റ്റ് ആകുന്ന വെള്ളമൊക്കെ അതിനു കൊണ്ടേ ഒഴിക്കലും വെള്ളമില്ലാത്ത ടൈം ആയാലും പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചങ്ങാണ്ട് ഞമക്ക് ആ പച്ചക്കറി പിന്നെ അതിലെ ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പിന്നെ പച്ചക്കറി ഉണ്ടാക്കി ഞമ്മക്ക് വീണ്ടും വീണ്ടും അതങ്ങനെ ഉണ്ടാക്കാൻ തോന്നും കാരണം നല്ല രസാ അതൊക്കെ കയിക മുളക് ആയാലും തക്കാളി ആയാ മുളക് ഒക്കെ പച്ച കളറിലും തക്കാളി ഒക്കെ ആണെങ്കിൽ റെഡ് കളർ ആയി നിൽക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയാണ് അതുമാതിരി കോവല് പച്ച കളറിൽ അതൊക്കെ ഇങ്ങനെ തോടുല് ഇങ്ങനെ ഉണ്ടായിങ്ങണ്ട് പന്തലുമേൽ കാണുമ്പോൾ അതേ മാതിരി ചുവപ്പ് ചീര പച്ച ചീര മുരിങ്ങ കായൊക്കെ നീളത്തിൽ ഒക്കെ നിൽക്കുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ അതിൻ്റെ അടീക്കൂടി ഒക്കെ ചെറിയ ഒരു വാഴ ഒക്കെ വെച്ച് പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ ഒക്കെ നടുക സൈഡിൽ കൂടി ഒക്കെ നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ അങ്ങനത്തെ ഒക്കെ വെച്ചു കൊടുത്ത് കുറ്റി ചെടികൾ ആണ് എല്ലാം അപ്പോൾ ഇതിനു ശല്യം ഇല്ല അപ്പോൾ അതിന് അപ്പ് പച്ചകറികൾക്ക് അങ്ങനത്തെ വെച്ചു തട്ടുകൊടുക്കുക

വിത്തുകളൊക്കെ അത് ഇട്ടുകൊടുത്താൽ ഉണ്ടാകും അല്ലെങ്കിൽ പഴുത്ത തക്കാളി പഴുത്ത കോവല് മുരിങ്ങ കായ് ഒക്കെ നമ്മൾ കുറച്ച് മണ്ണിൽ കുറച്ച് വളയും വളവും ചെയ്യേത് ചെയ്താൽ തന്നെ മുളച്ചു വരും മത്തന് ഒക്കെ തന്നെ ഇലകൾ ഉണ്ടാക്കാണ ഇല കറികൾ ഒക്കെക്ക് നലേ നമുക്ക് ആരോഗ്യത് ഒക്കെ നല്ലത് ഇല കറികൾ ആണല്ലോ ഇലകൾ ഒന്നും വാങ്ങാൻ കിട്ടില്ല ഇനി ഇപ്പോൾ വാങ്ങുവാണേൽ തന്നെ നല്ല വളമേ ഒക്കെ ഇട്ട് കിടനാശിനി ഉപയോഗിച്ച് കിട്ടുന്ന ഇലകളും പച്ചക്കറികളും നമുക്ക് എനിക്ക് ഞമ്മൾ തന്നെ ന വീട്ടിൽ നടുകയാണെങ്കിൽ ഞമുക്ക് നല്ല പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും പിന്നെ ഇലകളും ധാരാളം ഇലകളൊക്കെ ഞമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞമ്മക്ക് കഴിക്കുക പിന്നെ ഞമ്മൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഈ പച്ചപ്പ് കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും പിന്നെ നമുക്കും നല്ലൊരു മാനസിക മാനസികമായ സന്തോഷമുണ്ടാകും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പറിക്കാനും പച്ചക്കറി കട രണ്ടിന് ഇനി ഇപ്പോൾ രണ്ട് പച്ചോൾ ഒരു നാല് തക്കാളി ഒക്കെ ഉണ്ടാക്കാണേ തന്നെ ആകെ നമ്മളുടെ വീട്ടിൽ നിന്ന് പറിച്ച് വെച്ചെന്നു സന്തോഷം ഉള്ളിൽ ഉണ്ടാകും നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ ഇനി മുരിങ്ങ ആയാലും ചീര ആയാലും തോരൻ വെക്കാനൊക്കെ അത് എടുക്കുക അതേ മാതിരി കുറച്ച് പടവലം മത്തന്റെ വിത്തിടുന്ന വള്ളികളായില എടുത്ത് നമുക്ക് താളിക്കാൻ എടുക്കാം കറിയാക്കാം ഇപ്പോൾ സാധനത്തിനു ഭയങ്കര വിലയാണ് പച്ചക്കറികൾകൊക്കെ പിന്നെ തൊട്ടാൽ പൊള്ളണ വിലയാണ് ഭയങ്കര വിലയെന്ന് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നമ്മളുടെ ബഡ്ജറ്റിലേക്ക് താങ്ങി നിർത്താനും ഇങ്ങനൊക്കെ സഹായമാകും പിന്നെ ഞമ്മക്ക് വീട്ടമ്മമാർക്ക് ഒഴിവിൽ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനമാർഗ്ഗമാക്കി മാറ്റി ചെയ്യുക നല്ലവണ്ണമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ആണെങ്കിൽ വീട്ടിൽ ഉള്ളവരൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനും കയ്യും അടുത്തുള്ള വീടുകൾക്കൊക്കെ നമുക്ക് കൊടുത്തുങ്ങാണ്ട് നിപ്പോൾ വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് സഹായിക്കുകയും ചെയ്യാം കുറച്ചൊക്കെ പച്ചക്കറിക്ക് കൊടുത്തുകൊണ്ട് നി പപ്പായ അതൊക്കെ നല്ല വിറ്റാമിൻസ് ഉള്ള സാധനമാണ് പണിയില്ല ചെറിയ തയ്യക്കാട് മുക്ക് നട്ടുപിടിപ്പിച്ചു ഇഷ്ടം പോലെ കായുണ്ടാകും അതിൻ്റെയൊക്കെ അങ്ങനത്തെ അമര് പയ വർഗ്ഗങ്ങൾ പറയുകയാണെങ്കിൽ സപ്പോട്ട മാവ് പ്ലാവ് നാടൻപഴം ഏറ്റവും വിറ്റാമിൻ കുഴന്നത് ക്യൻസറിനെ വരെ പ്രതിരോധിക്കു സാധനം പ്ലാവ് മാവ് മാങ്ങ ചക്ക ചക്കേന്റെ കുരു പിന്നെ അത് കൊണ്ട് പല പലഹാരങ്ങൾ വരെ ഉണ്ടാക്കി കഴിക്കുക മുക്ക് ചക്ക കണ്ടു ചക്കപ്പൊരി പിന്നെ ചക്ക ജാം ചക്ക അലുവ ചക്ക പായസം ചക്ക ബിരിയാണി ഇപ്പോൾ ചക്ക കൂട്ടാൻ ചക്ക തോരൻ ചക്ക പൊരി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുക മാങ്ങ കൊണ്ടു തന്നെ അച്ചാറുകൾ മാങ്ങ പ മാങ്ങ ജ്യൂസ് മാങ്ങ കൊണ്ട് പല വിധ ജാമുകൾ വരെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം സപ്പോട്ട ഒക്കെ നല്ല പാഴമാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഊർജ്ജസ്വലതി ആരോഗ്യതിനൊക്കെ നല്ല പറ്റി അങ്ങനത്തെയൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ മരങ്ങളാണ് വലിയ ഉയരം വെക്കാത്ത ഇപ്പോഴൊക്കെ പെട്ടെന്ന് മൂന്ന് വർഷം കൊണ്ടൊക്കെ ആയി കോലത്തെ തൈകളൊക്കെ തന്നു നമുക്ക് പല കൃഷി ഓഫീസിൽ നിന്നു ലഭിക്കും അങ്ങനത്തെ കൊടുന്നു വെച്ച് നമുക്ക് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഞമ്മളുടെ നാടിനും ഗുണകരമാണ് ഞമ്മക്ക് ഞമ്മള ബഡ്ജറ്റിനെ താങ്ങി നിർത്താവുന്നതാണ്